പുതിയതായി എൻ്റെ ജന്മനാട്ടിലേയ്ക്ക് താമസം മാറിയതിൻ്റെ ഭാഗമായി എനിക്ക് എൻ്റെ ആദായ നികുതി വകുപ്പിൻ്റെ രേഖകളിലും എൻ്റെ പുതിയ വിലാസം രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതിനായി ഞാൻ ആരെയാണ് സമീപിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണകളില്ല എങ്കിലും ആദായ നികുതി എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ഒരു പ്രൊഫഷണൽ ഉള്ള ജീവിതത്തിൻ്റെ ഒര് ഭാഗമായത് കൊണ്ട്തന്നെ ആദായ നികുതി അടക്കേണ്ടത് ആവിശ്യകതവും ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ ആയിരിക്കുന്നത് കൊണ്ട് എനിക്ക് എത്രയും വേഗം അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാനുള്ളത് കൊണ്ട് തീർച്ചയായും എൻ്റെ നാട്ടിൽ അതിൻറ്റേക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിരിക്കും ഇതൊഴിച്ച് കൂട്ടാൻ സാധിക്കാത്ത ഒര് കാര്യമാണ് ആദായ നികുതി വകുപ്പിൽ ആദായ നികുതിയുടെ വെബ്സൈറ്റിൽ എൻ്റെ വ്യക്തമായ വിവരങ്ങൾ അലകാ എൻ്റെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ വിലാസം ഉൾപ്പടെ രേഖപ്പെടുത്തി എനിക്ക് എൻ്റെ ഭാവിയിലെൻ്റെ എനിക്ക് ഉപകാരപ്രദമാക്ന്ന രീതീലേയ്ക്ക് കാര്യങ്ങൾ മാറ്റി മറിക്കേണ്ടത് എൻ്റെ ആവശ്യം തന്നെയാണെന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട് തീർച്ചയായും ഞാൻ ഇത്തരമൊര് കാര്യങ്ങളെക്കുറിച്ച് വളരെ വേഗം തന്നെ അതിൻ്റെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ടൊള്ള കാര്യങ്ങൾ തീർച്ചയായും ചെയ്യ്ന്നതായിരിക്കും